ഉത്സവങ്ങള് പ്രധാനമായും ഇവിടെ വേലയാണുള്ളത് അതിന് ഞാന് ഉണ്ടാക്കുന്ന ഒരു പ്രധാന വിഭവമാണ് ചിക്കന് കറി കുരുമുളക് മാത്രം ഇട്ടിട്ടാണ് ചിക്കന് കറി ഉണ്ടാക്കുന്നത് മുളകുപൊടി ഉപയോഗിക്കാറില്ല കുരുമുളകും ജീരകവും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ അരച്ച് കഴുകി വച്ചിരിക്കുന്ന ചിക്കന് ചേര്ത്ത് പിടിപ്പിച്ച് അരമണിക്കൂറോളം വെയിറ്റ് ചെയ്ത് പിന്നെ ഉള്ളിയും തക്കാളിയും പച്ചമുളകും അരിഞ്ഞിട്ടിട്ട് നന്നായി വതക്കി അതിലോട്ട് ചിക്കന് കറി ഇട്ട് ഇളക്കി പാകത്തിന് വെള്ളമൊഴിച്ച് വെച്ചാണ് ഞാന് ചിക്കന് കറി ഉണ്ടാക്കുന്നത് മണത്തിന് വേണ്ടി പട്ടയും കറാമ്പൂവും അല്ലെങ്കില് ചിക്കന് മസാലപ്പൊടി കുറച്ചു ചേര്ക്കുന്നതാണ് കുറച്ചു മാത്രമേ കാരണം മസാല അത്ര ഇഷ്ടമല്ല വീട്ടിൽ അതുകൊണ്ടാണ് കുരുമുളകരച്ചു വെക്കുന്നത് അതാണ് വീട്ടില് എല്ലാവര്ക്കും ഇഷ്ടം ഓണത്തിനാണെങ്കില് ഞാന് വയ്ക്കുന്ന പ്രധാന പാചകങ്ങളില് അല്ലെങ്കില് വിഭവങ്ങളില് ഇഷ്ടമുള്ളത് എന്ന് പറയുന്നത് അവിയല് ആണ് ചേനയും കുംബ്ലങ്ങയും വാഴയ്ക്കായും കാരറ്റും മുരിങ്ങയ്ക്കായും എല്ലാം ഇട്ടിട്ടാണ് അവിയല് വെയ്ക്കുന്നത് അന്ന് നമ്മള് വെജിറ്റേറിയന് പച്ചക്കറികള് മാത്രമേ ഓണ സദ്യക്ക് വെയ്ക്കാറുള്ളൂ അതില് വെയ്ക്കുന്ന വേറൊന്നാണ് മത്തൻ്റെ ഓലന് അതും എല്ലാവര്ക്കും ഇഷ്ടമാണ് മത്തനും വെള്ളപ്പയറും കൂട്ടിയിട്ട് തേങ്ങാപ്പാലിലാണ് വെക്കുന്നത് പിന്നെ വെക്കുന്നൊരു വിഭവമാണ് ഇഷ്ട്ടു ഉരുളക്കിഴങ്ങ് വേവിച്ച് തേങ്ങാപ്പാലൊഴിച്ചു കുറുക്കിയാണ് ഇഷ്ട്ടു വെക്കുന്നത് പിന്നെ നമ്മള് വെക്കുന്നൊരു വിഭവമാണ് കൂട്ടുകറി ചേനയും കുംബ്ലങ്ങയും വേവിച്ച് കടലപ്പരിപ്പ് ചേര്ത്ത് വറുത്തരച്ച തേങ്ങയും മുളകുപോടിയും എല്ലാം കൂടി ചേര്ത്തിട്ടാണ് അരച്ച് ചെറുതായ രീതിയില് അരച്ചിട്ടാണ് കൂട്ടുകറി വയ്ക്കുന്നത് അതും വീട്ടില് എല്ലാവര്ക്കും ഇഷ്ടമാണ് പിന്നെ നമ്മള് വെക്കുന്നൊരു വിഭവം എന്നുപറയുന്ന പായസം നമ്മള് ഉത്സവങ്ങള്ക്കും എല്ലാ ഉത്സവങ്ങള്ക്കും വേല പൂരം അല്ലെങ്കില് ഓണം എല്ലാ വിഷു എന്നിവക്കെല്ലാം ഉണ്ടാക്കാറുണ്ട് പിന്നെ വെക്കുന്നൊരു വിഭവമാണ് വിഷുവിന് വിഷുക്കഞ്ഞി എന്നുപറയുന്നത് പച്ചരിയിട്ട് പുളിയവരക്ക വറുത്ത് പൊടിച്ച് രണ്ടു കഷ്ണങ്ങള് ആവുന്ന രീതിയിലൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ച് കുറച്ചു തേങ്ങയും ചിരവിയിട്ടിട്ടാണ് കഞ്ഞി വെക്കുന്നത് വിഷുവിനതാണ് സ്പെഷ്യല് വിഷുക്കഞ്ഞിയാണിവിടെ സ്പെഷ്യല്